കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായ ഇതാണ് കൊറോണ വന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഭക്ഷണത്തിനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ റേഷൻ കടയിൽ നിന്ന് നമ്മൾക്ക് സൗജന്യമായിട്ട് കിറ്റ് കിട്ടുമായിരുന്നു അങ്ങനെ ഒക്കെയാണ് ജീവിച്ചു പോകുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ രണ്ടു വർഷം വല്ലാത്ത കഷ്ടപ്പാടായിരുന്നു എങ്ങനെയൊക്കയോ തള്ളിനീക്കി ജീവിതം കൊണ്ടുപോയി ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതാണ് ഏറ്റവും വലിയ ഇത് പിന്നെ എന്തുവാ എല്ലാവർക്കും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഒരാളും പുറത്തിറങ്ങാതെയും ഭക്ഷണ സാധനങ്ങളെല്ലാം നമുക്ക് റേഷൻ കടയിൽ പോയി റേഷൻ കടയിൽ വരെ പോവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം പിന്നെ പച്ചക്കറികളെല്ലാം ഇങ്ങനെ ഇവിടെ വരുമായിരുന്നു അന്നേരം പൈസ ഉണ്ടാവില്ല വാങ്ങാൻ അങ്ങനെയൊക്കെ എങ്ങനെയെല്ലോ തള്ളി നീക്കി പോയി ആ രണ്ട് രണ്ടു മൂന്ന് വർഷം